നമ്മുടെ പ്രദേശത്തെ ഏറ്റവും കൂടുതല് നെയ്ത്ത് തുന്നൽ രീതിയാണുള്ളത് എനിക്കും തയ്ക്കാനറിയാം ഞാനും തയ്ക്കുന്ന ആളാണ് നമ്മൾ കൂടുതലായിട്ടും ചട്ടേമ്മുണ്ടും ബ്ലൗസ് എല്ലാം തയ്ച്ചെടുക്കും ഇപ്പോള് ഏറ്റവും കൂടുതല് പിന്നെ ഏറ്റവും കൂടുതല് ആവശ്യമായ ഒരു കാര്യമാണ് തയ്ക്കല് നെയ്ത്തെന്നൊക്കെപ്പറഞ്ഞാല് നമ്മള് തുണി ഒത്തിരി ഒരുപാട് നാള് നന്നായിട്ട് ഇരിക്കും പോകുകയില്ല അത് തുന്നിയെടുക്കുകയാണെങ്കില് നമുക്കൊത്തിരി നാള് ഉപയോഗിക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്ക ഒത്തിരി നാള് ഉപയോഗിക്കാം നന്നായിട്ട് ചെയ്യാന് പറ്റുന്ന ഒരു കാര്യമാണ് നെയ്ത്ത് തുന്നല് അപ്പോള് നമ്മൾ തയ്ക്കുമ്പോള് എന്തെങ്കിലും വിട്ടൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് കൈ കൊണ്ടു തയ്ക്കാന് പറ്റും കൈ കൊണ്ടെന്നും പറഞ്ഞാല് കുറച്ച് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് നമുക്ക് തയ്ച്ചെടുക്കാന് പറ്റും അത് ഒത്തിരിനാള് നല്ല വൃത്തിയായ്ട്ടിരുന്നോളും നല്ല എല്ലാർക്കുമുപയോഗിക്കാൻ പറ്റിയ ഒരു രീതിയാണ് തുന്നല് ഇപ്പോള് പല പല തരത്തിലുള്ള തുന്നൽ തയ്ക്ക്ന്നുണ്ടെല്ലാവരും ചിലര് സ്റ്റിച്ച് കൈകൊണ്ടു ചെയ്യും ചിലര് മിഷ്യൻ വച്ചു ചെയ്യും ഇപ്പോള് ഇലക്ട്രിക് മെഷീനൊക്കെ വന്നതു കൊണ്ടതു വളരെ ഉപകാരമാണ് എല്ലാവർക്കും കരണ്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്നുതന്നെ നമുക്കു തയ്ച്ചെടുക്കാം ഒരുപാട് നാള് നമുക്കതുപയോഗിക്കാം എല്ലാവർക്കും തയ്ച്ചത് ഇഷ്ടമാവുകയാണെങ്കിൽ നമുക്കു പിന്നേമ്പിന്നേം കിട്ടും അതു പല രീതിയിലായിരിക്കും ഓഡറൊക്കെ തരുന്നത് തയ്ക്കുന്നതാണ് എല്ലാവർക്കുമിഷ്ടം അപ്പോള് നെയ്ത്ത് നമ്മൾ നന്നായിട്ട് എമ്പ്രോയ്ഡറിയൊക്കെച്ചെയ്തു തയ്ക്കുന്നതാ ണെങ്കില് നമുക്കതൊരുപാട് നാളുപയോഗിക്കാം നന്നായിട്ട് ഇരിക്കുകയും ചെയ്യും തുണിക്ക് ചീത്ത തുണിയാണെങ്കില് പെട്ടെന്നു പോകും ക്വാളിറ്റിയുള്ള തുണിയാണെങ്കില് നമുക്കൊരുപാടു നാളുപയോഗിക്കാം നമ്മുടെ ഇഷ്ടത്തിന് നമുക്കു തയ്ച്ചെടുക്കാം പിന്നെ പരമ്പരാഗത വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കരിഷ്ടമാണ് ഞങ്ങള് പല രീതിയിലും തയ്ക്കുന്നുണ്ട് നമ്മുടെ ചട്ടേമ്മുണ്ടുമൊക്കെ നല്ല ഭംഗിയാണല്ലോ നമ്മുടെ മാർഗ്ഗംകളിക്കൊക്കെ ഉപയോഗിക്കുന്നതാണല്ലോ അങ്ങനെ ഒരുപാട് ഒരുപാടുണ്ട് പിന്നേ തുന്നല് കുഞ്ഞുങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കെന്തേലും പ്രോഗ്രാമൊക്കെ വരുമ്പോള് നമ്മള് ഒരുമിച്ച് ഒരുപാട് പേർക്കടെ ഒന്നിച്ചെടുത്തു ചെയ്യും അങ്ങനെ തയ്ച്ചു തയ്ച്ചുകൊടുക്കും അപ്പോള് അവർക്കതിഷ്ടമാവും അവർ അവരതുംകൊണ്ടു പ്രോഗ്രാമൊക്കെ ചെയ്യും അതുപോലെ മുതിർന്നവരും അമ്മച്ചിമാരും അമ്മച്ചിമാരുടെ പണ്ടത്തേ അമ്മച്ചിമാരൊരുപാട് ചട്ടേമ്മുണ്ടുമൊക്കെ ഉപയോഗിക്കുമായിരുന്നു ഇപ്പോള് അങ്ങനെ ആരും ഉപയോഗിക്കുകയൊന്നുമില്ല എന്നാലും നമ്മള് ചട്ടയൊക്കെ തയ്ച്ചുകൊടുക്കുന്നതവർക്കിഷ്ടമാണ് അപ്പോള് അവര് നന്നായിട്ടുപയോഗിക്കും അങ്ങനെ പരമ്പരാഗതമായ വസ്ത്രങ്ങൾ നമ്മളൊത്തിരി നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് അതെല്ലാവർക്കുമിഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ മാത്രമല്ല നമ്മളുടെ കീഴെ ജോലി ചെയ്യുന്ന ഒരുപാട് പേര് അങ്ങനെ തയ്ക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും നന്നായിട്ട് ഉപയോഗിച്ച് തയ്ച്ചാണെടുക്കുന്നത് തുന്നുന്നതു പിന്നേ കയ്യുങ്കൊണ്ടൊക്കെ തുന്നുമ്പോള് എന്തെങ്കിലും ശകലം പോയിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് കയ്യങ്കുൊണ്ട് തുന്നിയെടുക്കാം അതൊരുപാട് നാളിരുന്നോളും ഇച്ചിരി ഗ്യാപ്പിട്ടങ്ങ് തുന്നിയാല് മതി കുഴപ്പമൊന്നുമില്ല ഒത്തിരി നാള് നമുക്കുപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല അങ്ങനെ എല്ലാവർക്കും പഴയ ഒരു രീതിയിലേക്ക് വരണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം നെയ്ത്ത് തുന്നല് എല്ലാം എല്ലാം പഴയ പോലെതന്നെ ഒരുപാട് പേര് പഠിച്ച് അവനവന്റെ ആവശ്യമുള്ളതെല്ലാം ചെയ്യണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം